ഹലോ ഞാന് അനീറ്റായാണ് അപ്പോ ഞാനിപ്പോള് വളരെ തിരക്കേറിയ ജോലിയില്പ്പെട്ട ഒരിതിലാണ് അപ്പോള് നിങ്ങള് ദയവു ചെയ്തൊന്ന് ശ്രദ്ധയോടെ കേ എന്റെ ഗ്യാസ് ബുക്കിംഗ് ഡെലിവര് ബുക്കിംഗ് ആയിട്ടുണ്ടോയെന്ന് നോക്കുക എനിക്കത് നോക്കാനുള്ള സമയം ഒന്നുമില്ല ഞാന് വളരെ തിരക്കേറിയ ഒരു ജോലിയിലാണ് ഞാന് കലക്ടറേറ്റിലാണ് വര്ക്ക് ചെയ്യുന്നത് പ്ലീസ് നിങ്ങളൊന്ന് എൻ്റെ ബുക്കിങ് പരിശോധിപ്പോ എൻ്റെ ഗ്യാസ് തീര്ന്നിട്ട് രണ്ട് ദിവസമായി അപ്പോള് വീട്ടില് അമ്മച്ചി തനിയെ ഉള്ളൂ മമ്മി തന്നെയുള്ളൂ അപ്പം മമ്മിക്ക് ഗ്യാസിൻ്റെ ഇതില്ലാതെ ബുദ്ധിമുട്ടാണ് നിങ്ങള് എൻ്റെ ബുക്കിംഗ് ക ഒന്ന് പ്രോഗ്രസായോയെന്ന് നോക്കുക ഞാനിപ്പോള് നാട്ടില് ഇല്ലതാനും ഞാനിപ്പോള് ഒരു വിദേശയാത്രയിലാണ് അപ്പോ ഈ നമ്പറ് എൻ്റെ ആധാറിൻ്റെ റഫറന്സ് നമ്പര് എൻ്റെ ബുക്കിംഗ് റഫറന്സ് നമ്പറ് ഞാന് പറഞ്ഞുതരാം നാല് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം ഇതാണെൻ്റെ റഫറന്സ് നമ്പര് അതെയതെ അതെ ആ അതെയതെ ആ ആ ആ അതെ പിന്നീട് എൻ്റെ ആധാര് കാര്ഡിൻ്റെ അവസാനത്തെ നാല് നമ്പറെന്ന് പറയുമ്പോള് രണ്ട് എട്ട് രണ്ട് നാല് ആണ് പിന്നീട് ഞാനിപ്പോള് രണ്ടു മാസത്തോളമായി ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് ഏജന്സിയുടെ പേര് സ്നേഹ ഗ്യാസ് എജന്സി ആ അതുതന്നെ ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് അത് ബുക്കിംഗ് ആയിട്ടുണ്ടോയെന്ന് പേയ്മെ പേടിഎം ആണ് ചെയ്തേ പേടിഎം ആണ് വര്ക്ക് ചെയ്തത് അതെ അതെ അതെ ആ ഗ്യാസിന്റെ സര്വീസൊക്കെ ഗുഡ് നല്ലതായിരിക്കുമല്ലോ ഈയിടെയാണ് ഞാനൊരു ന്യൂസ് അറിഞ്ഞത് ഗ്യാസ് സര്വീസിന്റെ അത് സെക്കുവേറായിട്ടുള്ള ഡെലിവറി ബോയ്സിനെ മാത്രമേ വിടാവൂയെ അയ്യോ അതുകൊണ്ട് പറഞ്ഞതല്ല ഇത് പേടിയായിട്ടാണ് മമ്മി വീട്ടില് ഒറ്റയ്ക്കേയുള്ളൂ അതെയതെ ഓക്കെ താങ്ക് യൂ